വയനാട് ജില്ലയിലെ കാലാവസ്ഥയെന്ന് പറയുന്നത് ഓരോ സമയമോരോ കാലാവസ്ഥയാണ് അതായത് ഇപ്പോള് ഫെബ്രുവരി മാർച്ച് മാസങ്ങളില് നല്ല ചൂടിൻറ്റെ സമയമാണ് അതുപോലെ ജൂൺ ജൂലൈ എന്ന് പറയുന്നതൊക്കെ ചൂടിൻറ്റെ സമയാണ് പിന്നെ തണുപ്പ് തുടങ്ങുന്നത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസംതൊട്ട് ജനുവരി വരെയുള്ള സമയം വരെയെന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് തണുപ്പാണ് നല്ല തണുപ്പേറിയ സമയമാണ് അതുപോലെ ഈ ജൂൺ സമയത്ത് നല്ല മഴയും ഇടിയും അതിന്റെയൊരു സമയമാണ് അതായത് ഇപ്പം ഞങ്ങള് ഈ വയനാട്ടുകാരെ സംബന്ധിച്ചെടത്തോളം ഈയൊരു കാലാവസ്ഥയോട് തീർത്തും ഒത്തുപോകുന്നൊരു അവസ്ഥയാണ് ഞങ്ങളിപ്പോള് ഞങ്ങള്ക്ക് ഇപ്പോള് വേറൊരു ജില്ലയില് പോയാല് ഈയൊരു കാലാവസ്ഥയില് നിന്ന് വേറൊരു കാലാവസ്ഥയിലേക്ക് മാറുമ്പോള് ഒരുപാട് ശാരീരികമായ പ്രശ്നങ്ങളും എന്താണ് എല്ലാമുണ്ടാകും അപ്പോള് ഞങ്ങള് വയനാട്ടുകാര് ഇപ്പോള് വല്ല കോഴിക്കോട്ടേക്കോ തൃശ്ശൂരിലേക്കോ പോയാല് അമിതമായ ചൂടുകൊണ്ട് ഞങ്ങള്ക്കവിടെ നില്ക്കാന് പറ്റില്ല ആ ഒരു കാലാവസ്ഥയില് പിടിച്ചുനില്ക്കുകയെന്ന് പറയുന്നത് ഭയങ്കരം ബുദ്ധിമുട്ടാണ് അപ്പം ഇപ്പോഴത്തെ കാലാവസ്ഥയോട് ഇവിടുത്തെ ഒരു കാലാവസ്ഥയോട് ഒതുങ്ങിപ്പോകുന്നവരാണ് ഞങ്ങള് ഒരുപാട് ചൂടില്ല എന്നാല് അത്യാവശ്യം ചൂടുണ്ട് എന്നാല് ഒരുപാട് തണുപ്പില്ല എന്നാലോ അത്യാവശ്യം തണുപ്പുണ്ട് എന്നൊരു അവസ്ഥയിലൂടെയാണ് ഞങ്ങളിപ്പോള് കടന്നുപോകുന്നത് അതൊന്നും ഞങ്ങള്ക്കിപ്പം ഓക്കെയായിട്ട് പോകുന്നത് തന്നെയാണ് പിന്നെയെന്ന് പറയുന്നത് പിന്നെയെന്ന് പറയുന്നത് ഈ കാലാവസ്ഥ ഈ ജൂൺ തൊട്ട് സെപ്റ്റംബർ മുതല് ആ ആ സമയത്തെന്ന് പറയുന്നത് മൺസൂണിന്റെ ആരംഭമാണ് ആ ഒരു സമയത്ത് മഴ മഴക്കാലം തുടങ്ങി ഈ ജൂണെന്ന് പറയുന്നത് സ്കൂള് തുറക്കുന്ന സമയമാണ് സ്കൂള് തുറക്കുന്ന എല്ലാസമയത്തും എല്ലാസമയത്തും മഴയൊക്കെ കൊണ്ട് മൊത്തം നനഞ്ഞ് വരുന്നൊരു കാലമുണ്ടായിരുന്നു അതുപോലെതന്നെ ഇപ്പം അതൊക്കെ മാറി അതൊക്കെ മാറി ഇപ്പോള് സെപ്റ്റംബര് ഈ സെപ്റ്റംബറാകുമ്പോഴത്തേക്കും നല്ല തണുപ്പിൻറ്റെ സമയമായി രാവിലെയൊന്നും എഴുന്നേല്ക്കാന് പറ്റാതെ അത്രയ്ക്കും നല്ല തണുപ്പുള്ള സമയമായി ഇനി ഇതീയൊരു സമയം മാറണമെങ്കില് ജനുവരി വരെ ഈയൊരു കാലാവസ്ഥയിലൂടെയാണ് നമ്മള് കടന്നുപോകുന്നത് അതെല്ലാം മാറി ഒന്ന് ചൂട് പണ്ടത്തെ പോലെയാകണമെങ്കിൽ അടുത്ത ഒരു ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ചൂട് കാലമാണ് ചൂട് സഹിക്കാന് പറ്റാതെ പൊള്ളുന്ന ചൂടിൻറ്റെ സമയമാണ് അതൊരു മേയ് ആ ഒരു സമയം വരെ ചൂടിന്റെയൊരു അവസ്ഥയാണുണ്ടാകുന്നത്